സുധീഷേട്ടൻ അല്ലേ ഓട്ടോ ഓടിക്കുന്ന ഞാൻ നേരത്തെ വിളിച്ചിട്ട് ഉണ്ടായിരുന്നില്ലേ ആ ഏട്ടാ ഞാൻ പിന്നെ നേരത്തെ വിളിച്ചിട്ട് ഞാൻ കോഴിക്കോട് ടൗണിൽ വരാൻ പറഞ്ഞില്ലേ ആ ന്യൂ ഫോം റെസ്റ്റോറന്റിൻ്റെ അടുത്ത് ആ അതെ അതെ ഏട്ടനെ അവിടുന്ന് പോന്നോ ആ ആ ആണല്ലെ അവിടെ എത്തിട്ടാലേ ഉള്ളു അങ്ങനെയാണെങ്കിൽ ബൈപ്പാസ് വന്നാൽ മതിട്ടോ ബൈപ്പാസിൻ്റെ അവിടെ വന്നാൽ മതിയെ അതെന്താണെന്ന് അറിയോ ഞാൻ പിന്നെ എൻ്റെ ഫ്രണ്ട് അതായത് എൻ്റെ ഫ്രണ്ടിനെയും കാത്തിട്ടാണ് ഞാൻ ഇവിടെ നിന്നത് അപ്പോൾ അവൾ പറഞ്ഞു ഞാൻ ബൈപ്പാസിൻ്റെ അവിടെയാണ് ഉള്ളത് എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അവളെയും കാത്തിട്ടാണ് ഇവിടെ നിന്നത് അപ്പോൾ ഇവിടുന്ന് പിന്നെ ഏട്ടൻ ഓട്ടോ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അവളുടെ അടുത്തേയ്ക്ക് പോകാലൊന്ന് വിചാരിച്ചു അവള് അവിടെ ഉള്ളെന്നു വിചാരിച്ചു അവിടെ പോകാന്ന് വിചാരിച്ചു അപ്പോൾ അവൾ പറഞ്ഞു അവൾ അവിടെയാണ് ഉള്ളതെന്ന് പറഞ്ഞു അപ്പം അങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ലല്ലോ അപ്പം ബൈപ്പാസിലേക്ക് വന്നാൽ മതി അപ്പം ഞാൻ അങ്ങോട്ട് വരാം ആ ഓക്കേ ചേട്ടാ അങ്ങനെ ആണെങ്കിൽ നിങ്ങള് പിന്നെ ബൈപ്പാസിൻ്റെ അവിടെ വരുല്ലേ ഓക്കേ ഞാൻ അവിടെ തന്നെ ഉണ്ടാകും കെട്ടോ ഒക്കെ ഏട്ടാ